ആ വരൂ ആ വരൂ ഇരിക്കു

അതെ അല്ലെ ഓക്കേ ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈം തന്നെയാണ് അപ്പോൾ എന്തായാലും വന്നത് നന്നായി അപ്പോൾ ഏതു ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ വേണ്ടത് ഓ രണ്ടുകുട്ടികളുണ്ടല്ലേ ഓക്കേ അപ്പോൾ നമുക്കിവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് സ്റ്റാർട്ടായത് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിനെക്കുറിച്ചിട്ടൊക്കെ അറിയുമല്ലോ അല്ലെ

നമുക്ക് നമുക്ക് പൊതുവെ നല്ലയൊരു സ്കൂള്തന്നെയാണ് നല്ല മാർക്കും കുട്ടികളൊക്കെ പാസ്സായി പോകുന്ന നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോക്കെയുള്ള സ്കൂള് തന്നെയാണ് ഓക്കേ അപ്പോൾ

ക്ലാസ് അടുത്തമാസംതൊട്ട് സ്റ്റാർട്ട് ചെയ്യും അഡ്മിഷൻ ഈയൊരുമാസമാണ് ഇപ്പോൾ ഈയൊരാഴ്ച കഴിഞ്ഞാഴ്ചയുടെ മുന്നേ തുടങ്ങിയതാണ് ഇനി ഒരഴ്ചകൂടെ ഉണ്ടാകും അഡ്മിഷന്റെ ഡേറ്റ് അത് കഴിഞ്ഞാൽ അടുത്ത മാസംതൊട്ട് സ്റ്റാർട്ട് ചെയ്യും ആ രണ്ടാംക്ലാസ്സ് എന്തുപറ്റി രണ്ടാംക്ലാസ്സിപ്പോൾ ഇവിടെ ചേർക്കണേൽ മുമ്പേ എവിടെയാ പഠിച്ചിട്ടുണ്ടാരുന്നത് കുട്ടി അതെയതെ ആ ആ അതെ അല്ലെ ഓക്കേ ആ ഓക്കെ അപ്പോൾ അടുത്താണോ ഇവിടെ എവിടെയാ വീടുവരുന്നത് അതെ അല്ലെ ഓ അവിടേക്ക് രണ്ടു സ്കൂൾ ബസ് വരുന്നുണ്ട് നമ്പർ എട്ടും പത്തും ആ വഴിക്കാണ് വരുന്നത് ഒക്കെ അപ്പോൾ ഇത് ഓക്കേ ആ നമ്മുക്കിപ്പോയിവിടെ നമുക്ക് ഡോനേഷൻ്റെ കാര്യമറിയില്ലല്ലോ ഞാൻ പറഞ്ഞു തരാം ഡൊനേഷൻ വരുന്നുണ്ടിവിടെ ആ എൽ കെ ജി പഠിക്കണ കുട്ടിക്ക് ഒരു ലക്ഷവും ആ ഇപ്പോൾ രണ്ടാംക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒന്നര ലക്ഷവുമാണ് വരുന്നത് അഡ്മിഷനായിട്ട് ഇതില് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ യൂണിഫോം ഉൾപ്പടെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും നമ്മൾ പ്രൊവൈഡ് ചെയ്യും യൂണിഫോം കാര്യങ്ങൾ ബസ് ഫീസ് മാത്രം നിങ്ങൾ കൊടുക്കണ്ടി വരും മ്മ് അതെ മാസം അവിടെ അത് പീയൂൺ പറഞ്ഞുതരും അവിടെത്തെ ക്ലർക്ക് പറഞ്ഞേരും ഫീസിൻ്റെ ഫീസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയാണ് ബസ് കാര്യങ്ങൾ വരുന്നത് സ്ട്രക്ച്ചർന്ന് പറയുന്നത് പിന്നെ രാവിലെ ഒമ്പതു മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എൽകേജിയുള്ള കുട്ടിക്ക് പത്തുമണിക്കും രണ്ടാംക്ലാസ്സിലുള്ള കുട്ടിക്ക് ഒമ്പതുമണിക്കും സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സ് അപ്പോൾ നമക്കൊരു മുന്ന് മണിവരെ ക്ലാസ്സ് ടൈം മുന്ന് മണിവരെ ഉണ്ടാവുകയുള്ളു ക്ലാസ്സ് ആ രണ്ടുമണിവരെ ആ എൽകെജിയുള്ളവർക്ക് ഉച്ചയാകുമ്പോൾ വിടും രണ്ടാംക്ലാസ്സുകാർക്ക് മുന്നുമണിക്കും അതെ അതാണ് ഞാൻ ആ ഒമ്പത് ഒരു രണ്ടാം ക്ലാസ് പഠിക്കണ കുട്ടിക്ക് ഒമ്പതുമണിതൊട്ട് മൂന്നുമണിവരെയും എൽ കെ ജി പഠിക്കണ കുട്ടിക്ക് പത്തുമണി തൊട്ട് ഉച്ച വരെയുമാണ് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടു ബസ് വരുന്നുണ്ടെന്ന് ഓക്കേ എൽകെജിയിൽ പഠിക്കുന്ന കുട്ടിക്കൾക്കുള്ള ബുസ്ടൈമാണ് രാവിലെ നേരത്തെ വരും കുറച്ച് നേരത്തെ അല്ല വൈകിട്ട് ഒമ്പതാംക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് കുറച്ച് നേരത്തെവരും ഓക്കേ അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് ആ ഫുഡ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഉച്ചക്കുവേണ്ട ഫുഡും ഇടയിൽ സ്നാക്സും നിങ്ങള് കൊടു സ്നാക്ക്സ് കൊടുത്തുവിടാൻ ഓക്കേ അല്ലെങ്കിൽ നമുക്കിവിടെ പാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബ്രേക്ക്ടൈമിൽ പാലും ബിസ്കറ്റുമൊക്കെയുണ്ടാകും ഉച്ചഭക്ഷണവും ഇവിടുന്നുണ്ടാവും പിന്നെ സ്നാക്ക്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ കൊടുത്തുവിടാം അത്രെ ഉള്ളു എന്താണ് ആ കാര്യങ്ങളെല്ലാമുണ്ടിവിടെ നമ്മുക്ക് പുറത്തൊക്കെ ഇൻഡോർന്നെയാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര സേഫായിരിക്കും പുറത്ത് പോകേണ്ടിയൊന്നും വരുന്നില്ല ഇൻഡോർ സ്റ്റേഡിയങ്ങൾതന്നെയാണ് ഫുൾ ഉള്ളത് ഗ്രൗണ്ടുകളൊക്കെ പ്ലൈഗ്രൗണ്ടൊക്കെ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കളിപ്പാട്ടങ്ങളെല്ലാകാര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ്ബുക്ക് നമ്മളിവിടെകിട്ടും അത് നിങ്ങൾ മേടിക്ക് ഇല്ല ഈ ടെസ്റ്റിബുക്കിൻ്റെ ബുക്കും കാര്യങ്ങളും അതേപോലെ ഈ പറഞ്ഞ ഇതും ആ ബസ് ഫീസിൻ്റെ കാര്യം നമ്മള് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്സ അത് നിങ്ങൾ അഡീഷനലി മേടിക്കണം ആ അത് ബുക്കും ബുക്സ്റാള്ളുമിവിടെയുണ്ട് അവിടെപ്പോയി പറഞ്ഞാൽ ബുക്കുകൾ തരും അത് നിങ്ങൾ അതിന് അഡിഷണൽ ഫീസുകൊടുത്തു മേടിക്കേണ്ടി വരും അതേപോലെ ബസ്ചാർജ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ കുട്ടിക്ക് അഡ്മിഷനെടുക്കാൻ ടിസിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ടിസിയും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയാൽമതി അഡ്മിഷൻ്റെ അപ്പുറത്തന്നെയാണ് അവിടെപ്പോയി പറഞ്ഞാൽ ഫുൾ കാര്യങ്ങൾ ചെയ്തുതരും സീൽ വെച്ചുതന്നാൽ അവിടേക്ക് പോയാൽമതി ഓക്കേ ഓക്കേ ശരി അങ്ങട് പോക്കൊള്ളു എന്നാൽ ഓക്കേ